ആ ഇത് ഇത് അക്ഷയ സെൻറ്റെറീന്നാണെ വിളിക്കുന്നത് ആധാർ കാർഡ് ൻ്റെ ആവശ്യത്തിനായിട്ട് ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ എത്രനാളായി അയ്യോ അപ്പം അത് പുതുക്കാറായിട്ടുണ്ട് കേട്ടോ ആധാർ കാർഡ് നമുക്ക് പുതുക്കണം എന്ന് അറിയാമല്ലോ ആ ആ അപ്പോൾ അതിനുവേണ്ടി അത് പുതുക്കാനായിട്ട് ഉടനെ തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലേക്ക് വരേണ്ടതാണ് ആ അപ്പം അതിന് എന്തൊക്കെ ആവശ്യം വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാവെ ആധാർ കാർഡ് നമ്മുടെ ഇപ്പോൾ ഉള്ള ആധാർ കാർഡ് വേണം അതുപോലെത്തന്നെ ഒരു ഫോട്ടോ വേണം പിന്നെ അ ആ ഒരു ഫോട്ടോ വേണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തന്നെ നമ്മുടെ നമ്മടെയാണ് എന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ എന്തെങ്കിലും ഒരു കോപ്പി എടുത്തിട്ട് വരണം ആ ആ അതെ അതെ റേഷൻ കാർഡിൻ്റെ കോപ്പി ആണെങ്കിലും മതി എന്ത് ആ എന്ത് അങ്ങനെ ഉള്ളതായിട്ട് എടുത്തിട്ട് ഉടനെ തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്റെറിൽ വന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ ആ ഓക്കെ പിന്നെ ബാക്കി പാൻ കാർഡ് ഉണ്ടോ പാൻ കാർഡും എടുക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നേനെ കേട്ടോ പാൻ കാർഡ് ഒക്കെ എടുക്കുകായാണ് എന്ന് ഉണ്ടെ ആ അതുപോലെത്തന്നെ നമ്മുടെ ആ പിന്നെ വേറെ എന്താ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടല്ലോ അല്ലേ വോട്ടേഴ്സ് ഐ ഡി വോട്ട് ചെയ്യുന്ന ആ വോട്ട് ചെയ്യാറുണ്ടോ സ്ഥിരമായിട്ട് ആ കഴിഞ്ഞ എലക്ഷനിൽ വോട്ട് ചെയ്തായിരുന്നല്ലോ അല്ലേ ആ ആ ഓക്കെ ആ ആധാർ കാർഡ് അപ്പം പുതുക്കുന്ന കാര്യത്തെപറ്റി ഒന്ന് ഒന്ന് നോക്കണം കേട്ടോ ആ വേറെ എന്തെങ്കിലും അക്ഷയ ആ ഞങ്ങളോട് ചോദിക്കാനായിട്ട് ഉണ്ടോ അക്ഷയ സെൻറ്ററിൻ്റെ ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുമായിട്ട് എന്താണ് അതിൻ്റെ പറയാനായിട്ട് ഉള്ളത് നല്ല അഭിപ്രായമാണോ ആ ഒക്കെ ഓക്കെ വളരെ സന്തോഷം കേട്ടതിൽ പിന്നെ പിന്നെ അതുപോലെത്തന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ വേറെ ഒരു സംശയവും ഇല്ലല്ലോ ആ ഓക്കെ പിന്നെ നമ്മൾ എന്തൊക്കെ കൊണ്ട് വരണം എന്ന് ഉള്ളത് അറിയാമല്ലോ അല്ലേ ഉടനെത്തന്നെ നാളെ തന്നെ പറ്റുവാണെ നാളെത്തന്നെ വരണെ ആ അല്ലെങ്കിൽ ആൾ കൂടുന്നതിന് മുന്നെ നമുക്ക് ഉടനെത്തന്നെ ഇത് ചെയ്യുകയാണെകിൽ കുഴപ്പം ഇല്ലല്ലോ ആ ഓക്കെ എന്നാൽ ശരി ശരി താങ്ക് യൂ മ്മ്